പത്തനംതിട്ട ജില്ല മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ പത്തനതിട്ട ജില്ലയിലെ പ്രധാന ആകര്ഷണം എന്നൊക്കെ പറയാന് പറ്റുന്നൊരു കാര്യമാണ് ശബരിമല അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള പുരാതനമായ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ആറമ്മുള തിരു ആറമ്മുള പാര്ത്ഥസാരഥി ക്ഷേത്രമായിക്കോട്ടേ മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രമായിക്കോട്ടേ അയിരൂര് പുതിയ കാവായിക്കോട്ടേ പന്തളം ധര്മ്മശാസ്താ ക്ഷേത്രമായിക്കോട്ടേ അങ്ങനെയൊരുപാട് ക്ഷേത്രങ്ങൾ ചരിത്രപ്രാധാന്യമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്തായിട്ട് ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ആള്ക്കാരാണ് കൂടുതലുള്ളത് പക്ഷേ അതേപോലെത്തന്നെ പ്രധാനമായിട്ടും അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നൂറ്റി ഒമ്പത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തില് പത്തനംതിട്ട ജില്ലയുടെ കോഴഞ്ചേരിയിൽ അതായത് പമ്പാനദിയുടെ തീരത്തായിട്ട് സ്ഥാപിച്ചൊരു പള്ളിയാണ് മലങ്കര മര്ത്തോമാ സിറിയന് പള്ളി അഥവാ വലിയ പള്ളിയെന്ന് മര്ത്തോമാ വലിയ പള്ളിയെന്ന് കോഴഞ്ചേരിക്കാർ വിളിക്കുന്ന പള്ളി ഈ ഏരിയയിൽ കൂടുതലും ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത് അതേപോലെത്തന്നെ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ആള്ക്കാരും ഒരുപാടുണ്ട് അതുകൊണ്ട് എല്ലാ മതസ്ഥരുമൊരു മതസൗഹാര്ദത്തില് ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട ഹിന്ദു ക്രിസ്ത്യന് മുസ്ലീം സമൂഹങ്ങളെല്ലാം ഉണ്ട് അതേപോലെത്തന്നെ വളരെ ചെറിയ രീതിയിൽ ആണെങ്കിൽപ്പോലും ബുദ്ധിസം ജെയ്നിസം ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ കണ്ട് വരുന്നു അല്ലാതെ ഈ പ്രദേശത്ത് കണ്ടു വരുന്നുണ്ട്